ആ അതേ ഇത് ആരായിരുന്നു

ഇവിടെ ഇവിടെ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആണ് വേണ്ടത് ആ ചക്ക രണ്ടു തരം ചക്ക ഉണ്ട് വരിക്കച്ചക്കയും ഉണ്ട് പഴം ചക്കയും ഉണ്ട് അതിൻ്റെ തന്നെ നല്ലോണം പഴുത്തതും ഉണ്ട് കുറച്ച് പഴുത്ത് വരുന്നതും ഉണ്ട് പിന്നെ വരിക്കച്ചക്കാന്ന് പറഞ്ഞാല് നല്ല തേൻവരിക്ക ഉണ്ട് മറ്റെ കുറച്ച് ഇതായ വരിക്കയും ഉണ്ട് തേൻവരിക്കയിലൊക്കെ സാധാരണ വരിക്കയും ഉണ്ട് അതെയോ ആ ആ ആ ആപ്പിള് ഇറാൻ ആപ്പിള് ഉണ്ട് തക്കാളി ആപ്പിള് ഉണ്ട്

ആ അന്നേരം ഒരു പിന്നെ ഇറാൻ ആപ്പിളിന് കുറച്ച് പൈസ കൂടുതൽ ഉണ്ടേ വില കൂടുതൽ ഉണ്ട് ആ അതേ അല്ലെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങള് ഇങ്ങോട്ട് കൊണ്ട് വരുമോ വരുമോ ആരെങ്കിലും എടുത്ത് വയ്ക്കുവാണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ട്തരണോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ആകില്ല രണ്ടു മണിക്കൂറത്തെ താമസം ഉണ്ട് എന്തായാലും ഇവിടെ കുറച്ച് തിരക്ക് കൂടുതൽ ആണേ അതുകൊണ്ട് രണ്ടു മണിക്കൂർ എടുക്കും ആ ഇവിടെ കുറച്ച് തിരക്കാണ് അതെയോ ഉം ഇപ്പോൾ തിരക്കുള്ള സമയത്ത് ഫോൺ എടുക്കാനും ആളില്ല ഇന്ന് പിന്നെ ഇവിടെ ഉള്ള പിള്ളേർ എല്ലാം കുറവാണ് ആയിക്കോട്ടെ ആ എന്നാൽ പിന്നെ ഞാൻ എല്ലാം ഇവിടെ എടുത്ത് വെക്കാം ഏ ആ എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് ഒന്നുംകൂടി പറയുമോ ആ ആ ഇറാൻ ആപ്പിളിന് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് കിലോയ്ക്ക് ആ പച്ച ആപ്പിളിന് പച്ച ആപ്പിളിന് ഇരുന്നൂറ് രൂപയും ആയിക്കോട്ടെ എന്നാൽ പിന്നെ നിങ്ങൾ വന്നോ കെട്ടോ ആ എന്നാൽ ശരി